ഇവിടെ നമ്മുടെ ഇവിടെ ഈ നാട്ടു വൈദ്യന്മാരെന്ന് പറഞ്ഞാല് ഉണ്ട് നല്ല ഇതാണ് അവര് അവര് തന്നെ ചെയ്തില്ലേലും അവര് നമുക്ക് പറഞ്ഞുതരും ഞാന് ഒരു ഇപ്പോള് ഉദാഹരണം ഒരു കാലുവേദന വന്നു നമ്മള് കാലു വേദനകൊണ്ട് ടാബ്ലറ്റ് മേടിച്ചു കഴിച്ചാലത് പെട്ടെന്ന് കുറയുകയോ എടുക്കൊക്കെ ചെയ്ത് എന്നാലും പിന്നെയും ഇത്ര മണിക്കൂറല്ലേ ഇത്ര ദിവസല്ലേ ഇത്ര ആഴ്ച കഴിയുമ്പോള് പിന്നെയും വരുന്നു അപ്പോള് ഈ വൈദ്യനെ സമീപിക്കാമെങ്കില് വൈദ്യൻ പറയുന്നുണ്ട് നമ്മടടുത്തോട്ട് വരണ്ട നിങ്ങള് എന്നാ കാട്ട് അല്ലേ നമ്മുടെ പറമ്പിലും എന്നാ പ്രദേശത്തൊക്കെ കിട്ടുന്ന എന്തോ ചെടികളെ കുറിച്ചൊക്കെ പറയും അത് കൊണ്ടുപോയി അത് വെന്ത് നമ്മളതിൽ ചവിട്ടി പിടിക്കുകയും ചെറുതീയില് ചൂടില് അത് ചവിട്ടി പിടിക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോള് അത് നല്ലാ രീതിയിലാണു പറഞ്ഞ്തര്ന്നേ നമ്മള്ക്ക് അധികം കാശ് മുടക്കില്ല ഇംഗ്ലീഷ് മരുന്നല്ലെങ്കില് മറ്റ് ഹോസ്പിറ്റലൊക്കെ പോകുന്നതിനെ വച്ചുനോക്കുമ്പഴത്തേക്കെന്നാ ഈ നാട്ടു ചികിത്സ നമുക്കൊത്തിരി ഗുണകരമാണ് ചേലേത് ഇതിന് നമ്മള്ക്ക് ചുറ്റുവട്ടത്തൂന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ തന്നെ തിളപ്പിച്ച് കുടിക്കുവോ അല്ലെങ്കില് ചൂടാക്കി പിടിക്കോ അങ്ങനൊക്കെ ചെയ്താല് മതി നല്ല ഇതാണ് എന്നാല് ഞങ്ങള്ക്കൊത്തിരി ഗുണം ഒരു ഒത്തിരി പ്രയോജനപ്പെടുന്നുണ്ട് ഈ നാട്ടു ചികിത്സ കൊണ്ട് അവരുടെ ചികിത്സ ഒരാൾക്ക് അനുഭവപ്പെട്ടാലത് മറ്റൊരാൾക്ക് പകർന്നു കൊടുത്ത് അവരേയും അവർക്കും ഗുണകരമാക്കിയെടുക്കാനത് അതായത് ഈ നാട്ടുചികിത്സ നമ്മള് നമ്മുടെ പിന്നെ സാമ്പത്തികമായിട്ട് പുറകോട്ട് നില്ക്കുന്നവർക്കും അത് വളരെ ഗുണകരമാണ് അവരുടെ ചികിത്സാരീതി അവരുടെ അടുത്തു ചെന്നാല് അവര് ചെയ്തുതരുന്ന കൂടാതെ അവര് ചില ചില കാര്യങ്ങള് പറഞ്ഞുവിടുന്നതുകൊണ്ട് നമുക്ക് അത് ഗുണമാണ് നമ്മുടെ വീട്ടില് വന്നിട്ട് നമുക്ക് തന്നെ ചെയ്യാം ഒത്തിരി ഒത്തിരി പ്രയോജന ഒത്തിരി പ്രയോജന ഒത്തിരി പ്രയോജനമുണ്ട് ഈ നാട്ടുചികിത്സ എന്ന അത് അത് എന്നാ നമുക്ക് ഏത് ഏതു രോഗത്തിനാണേലും മഞ്ഞപ്പിത്തം അതുപോലുള്ള കാര്യത്തിന് ചെന്നാലും ചെറിയ മരുന്നുകൊണ്ട് ചെറിയ ചിലവ് ചിലവേ ആകുന്നുള്ളു അത് നമുക്കു ഗുണകരമാണ് പ്രത്യേകിച്ച് ഈ കൊച്ചുങ്ങടേക്കെ തലയിലെ താരൻ താരൻ താരൻ മാറിക്കിട്ടാനായിട്ട് ത് ഇത് നിസാര നിസാര മരുന്ന് ഇത് മരുന്നല്ല അവര് നമ്മള് വീട്ടിലുപയോഗിക്കുന്ന സാധനങ്ങള് തന്നെ ഉപയോഗിച്ചാല് മതി അത് അത് ഒത്തിരി അതൊത്തിരി ഗുണകരമാണ് പിന്നെ നാട്ടു ചികിത്സ ശരിക്കും പറഞ്ഞാല് എല്ലാ പ്രായക്കാർക്കും ഗുണകരമായിട്ടുള്ള ഒരു ചികിത്സയാണ് അത് അതിനു നമുക്ക് എന്നാ ഒരു വൈദ്യനെ ശരിക്കും ഉള്ളത് ഒരു വീടിന് ഒരു വൈദ്യനുള്ളത് എപ്പോഴും ഗുണം ചെയ്യുന്നതാണ്